നമ്മുക്ക് എല്ലാവർക്കും ഇഷ്ടം ഉള്ള ഒരു കാര്യം തന്നെയാണ് പെറ്റ്സ് എന്നു പറയുന്നത് എല്ലാ വീടുകളിലും എന്തെങ്കിലും പെറ്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പെറ്റ്സ് എന്നു പറയുന്നത് എല്ലാവരുടെയും ഫേവറൈറ്റ് സാധനം തന്നെയാണ് ഓരോ ആൾമോസ്റ്റ് എല്ലായിടത്തും നായ് പട്ടികൾ കാര്യങ്ങൾ പിന്നേ പക്ഷികൾ അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും എല്ലാ വീടുകളിലും മെയിൻ ആണ് അപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും പണ്ട് ഉണ്ടായിരുന്നു പട്ടി ഉണ്ടായിരുന്നു അതും പൂച്ചപ്പട്ടിയെന്ന് പറയുന്ന സാധനം അതിൽ ഉണ്ടായിരുന്നത് അത് എന്നു പറയുമ്പോൾ അതിനെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി ആണ് മൊത്തം വൈറ്റ് രോമം ഒക്കെ ആയിട്ട് കാണുമ്പോൾ തന്നെ ഒരു അട്രാക്റ്റീവ് ആയിരിക്കും കാണാൻ തന്നെ നല്ല ഭംഗിയായിട്ട് പിന്നെ നല്ല രീതിയിൽ ആൾക്കാരുമായിട്ട് മിങ്കിൾ ആകുമായിരുന്നു പുറമെയുള്ള പോലെ ആൾക്കാരുമായിട്ടല്ല വീട്ടുകാരുമായിട്ട് നല്ല മിങ്കിളും കാര്യങ്ങളും ആണ് അത്രയും സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറകെ നടക്കുകയും എവിടെ പോകുമ്പോഴാണെങ്കിലും നമ്മുടെ പുറകെ ഇങ്ങനെ നടക്കുകയും നമ്മുടെ ഒരു എന്താണ് വീട്ടിലെ ഒരു അംഗത്തെ പോലെ ഒരു രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരിക്കുക അതൊരു പ്രായമായിട്ടാണ് ചത്തുപോയത് അപ്പം അതുവരെ അത് അങ്ങനെ ആയിരുന്നു ഒരു വീട്ടിലെ ഒരു അംഗത്തെപോലെ തന്നെ ഫുൾ ടൈമ് ഒപ്പം എല്ലാ കാര്യത്തിനും ഒപ്പം അമ്മേന്റെ പുറകെയാണെങ്കിലും അച്ഛൻ്റെ പുറകെയാണെങ്കിലും എൻ്റെ പുറകെയാണെങ്കിലും ഒക്കെ ഫുൾ ടൈം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ നല്ല നല്ല സ്നേഹവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു വല്ലാത്തെ ഒരു എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണെങ്കിലും ഇപ്പം എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങനെ അടുത്ത് വന്നിങ്ങനെ കിടന്ന് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് ഇരിക്കുകയും നമ്മുടെ പുറക്കെ ഇങ്ങനെ ആക്കുകയും നമ്മുടെ അടുത്ത് നമ്മളെ അതിന് കണ്ടില്ലെങ്കിൽ വന്നിട്ട് ഒരു നോക്കിക്കൊണ്ട് നിൽക്കുന്നതും പിന്നെ പെട്ടന്ന് കാണുമ്പോൾ ഓടിവരികയും അങ്ങനെയൊക്കെ ഭയങ്കര സ്നേഹമുള്ള ഒരു സാധനം ആണ് ഓൾമോസ്റ്റ് പെറ്റ്സ് എന്നു പറയുന്നതെല്ലാം തന്നെ ഭയങ്കര സ്നേഹമുള്ള ഒരു ഐറ്റം ആയിരിക്കും നമ്മളിപ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അത് നമ്മളെ ആയിട്ട് അത്രയും മിങ്കിൾ ആയിരിക്കും ഓൾമോസ്റ്റ് എല്ലാ ഇടത്തും തന്നെ അങ്ങനെ ആണ്